ഹലോ ഉദകകുടപ്പന്നയിൽ നിന്നാണ് വിളിക്കുന്നത് ആർക്കാഡിയ ഹോട്ടലാണോ ഞങ്ങൾക്ക് രണ്ടു ചിക്കൻ സൂപ്പ് വേണ്ട വേണമായിരുന്നു അത് എന്താണ് റേയ്റ്റ് റേയ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നു പറയാമോ അത് നല്ല ഒരുപാട് മസാലയൊന്നും ഇടണ്ടേ പിള്ളേർക്കു കൂടി കൊടുക്കാൻ വേണ്ടി ആയതു കൊണ്ടാണ് ഇച്ചിരി നന്നായിട്ടൊക്കെ ഇച്ചിരി മസാല കുറച്ച് ഇട്ടാൽ മതി രണ്ടു സെറ്റ് ചിക്കൻ സൂപ്പ് റേറ്റ് വിവരങ്ങളും കാര്യങ്ങളൊന്നു പറയണേ പിന്നെ എല്ലാവർക്കും കൂടി കുറച്ചു കുറച്ചു കുട്ടികളുണ്ടിവിടെ കുട്ടികൾക്ക് കൂടി കൊടുക്കേണ്ടതു കൊണ്ട് കുറച്ചെരിവു കുറച്ച് എടുക്കാവുള്ളൂ അതാണ് പറഞ്ഞത് കുറച്ച് എരിവു കുറച്ചു മതി ആ അങ്ങനെ എടുത്താൽ മതിയേ